ഞങ്ങളുടെ പ്രദേശത്ത് അങ്ങനെയെന്ന് പറയാന് ഇപ്പോൾ ഗേള്സിനും ആ ബോയ്സിനും മാത്രമായിട്ടല്ല ഇപ്പോൾ ഇവിടുത്തെ സ്പോര്ട്ട്സ് സെന്ററുകളൊക്കെ ഇപ്പോൾ രണ്ടു പേര്ക്കും മിക്സഡാണ് ഇപ്പം ഗേള് ഇപ്പം ഗേള്സിനോ ഇപ്പം നമ്മളുടെ ബോയിസ് കളിക്കുന്ന കൂട്ടത്തിൽത്തന്നെ നമുക്ക് ഗേള്സിനെയും കളി കളിക്കുന്നുണ്ട് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് പറഞ്ഞു താഴ്ത്തി നിര്ത്തുന്നില്ല എല്ലാവര്ക്കും അവരവർക്കായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും സ്പോര്ട്ട്സ് സെന്ററുകളവിടെ നല്കിയിട്ടുണ്ട് എല്ലാ ഗേള്സിനായാലും ബോയിസിനായാലും അവിടെ നല്ല രീതിയിൽത്തന്നെ കളിക്കാന് സല ഗ്രൗണ്ടുകളുണ്ട് അവര്ക്ക് ഇഷ്ടമുള്ള കളികൾ കളിക്കാം അവര്ക്ക് അവരെ കറക്റ്റിനായി കോച്ച് ചെയ്യാൻ വേണ്ടി കോ കോച്ചന്മാരുണ്ട് ഗേള്സിന് ഗേള്സിന്റെ രീതിയില് കോച്ച് കോച്ചന്മാരുണ്ട് ബോയിസിന് അതേപോലെയുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിൽത്തന്നെ കുട്ടികളെ അവർ സ്പോര്ട്ട്സിലേക്കും അവരുടെ കായിക പരമായിട്ടുള്ള ഇതിലേക്കും മുമ്പേയ്ക്ക് കൊണ്ട് വരാനാണ് നല്ല രീതിക്കുതന്നെ ട്രെയിനിങ് കിട്ടിയ കോച്ചിംഗ് സെന്ററുകള് ഇവിടെ ഒരുപാടുണ്ട്